നമുക്ക് പ്രധാനപ്പെട്ട നമ്മളുടെ വിനോദങ്ങളിലൊന്നെന്നു പറയണത് അമ്മ കായികവിനോദം തന്നെയാണ് അപ്പം എനിക്ക് കായികവിനോദങ്ങളിലേറ്റവും ഇഷ്ടപ്പെട്ടതൊരുപാട് വിനോദങ്ങളുണ്ട് നമുക്ക് ക്രക്കറ്റിഷ്ടമാണ് ഫുട്ബോളിഷ്ടമാണ് അങ്ങനെ എല്ലാ വിനോദ പരിപാടികളും നമ്മളാസ്വദിക്കുന്ന ആളാണ് പക്ഷെ എന്നാല്പ്പോലും നമ്മക്കേറ്റവും കൂടുതലിഷ്ടം ഫുട്ബോളിനോടു തന്നെയാണ് എന്ത്കൊണ്ടാണ് ഫുട്ബോളിനോട് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാലൊന്ന് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മളുടെ ചുറ്റുപാടിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളവർ നമ്മളെ ഫുട്ബോൾ തന്നെയാണ് പിന്നതേപോലത്തത് ഞാൻ ഒരു ഫുട്ബോൾ ക കളിയ്ക്കുക ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളുടെ നാട്ടിൽ ഗ്രൗണ്ടുകളിൽ കളിക്കാറുണ്ട് പിന്നെ സ്കൂളുകളിൽ കളിക്കാറുണ്ട് അതു കൊണ്ടു തന്നെ നമ്മൾ ഫുട്ബോള് കളി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയും കൂടിയാണ് അതു കൊണ്ടു തന്നെ നമ്മൾ പല ഫുട്ബോൾ കളികൾ കാണാന് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ കളിയ്ക്കുകയെന്നു പറഞ്ഞാൽ നമ്മളെ ശാരീരികായിട്ട് നമുക്കൊരുപാട് മെ മെച്ചങ്ങളുണ്ടാകണം രണ്ട് മണിക്കൂർ ജിമ്മ് പോയിട്ട് അമ്മക്ക് കിട്ടുന്നൊരു വ്യായാമം അര മണിക്കൂർ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കാരണം ഞാൻ നല്ലോം ഭഷ്ണം കഴിക്കുന്നൊരു വ്യക്തിയാണ് നല്ലവണ്ണം എന്നാണ് വെച്ചാൽ വളരെയധികം ഭഷ്ണം കഴിക്കുന്ന വ്യകതിയാണ് ശ്ശമ്മളിപ്പോൾ ഇത് ബി എം ഐയിൽ നമ്മളത് മേയ്ന്റെയ്ന് ചെയ്ത് പോകുന്നത് ഒരുപക്ഷെ ഈ ഫുട്ബോൾ കളി കൊണ്ടായിരിക്കാം കാരണം നമ്മളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു സന്തോഷം കിട്ടണെയീ ഫുട്ബോൾ കളിക്കുമ്പം നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെന്തു ചോദിച്ചാല് നമ്മളീ ഫുട്ബോൾ കളിയെന്നുള്ളത് മറ്റുള്ള ലഹരിപദാര്ത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന നമ്മളീയൊരു വിനോദത്തിലൂടെയാണ് അതു കൊണ്ട് ഇ കുട്ടികളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതാണ് കൊണ്ടു വരേണ്ടത് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ അമ്മക്ക് നോക്കിയാൽ അറിയാഞ്ഞ ഞാൻ എനിക്കിപ്പോൾ ഒരു ഇരുവത്തിയേഴ് വയസ്സായി അപ്പോൾ ഈ ഒരു പ്രായത്തിലും അവിടെ ഞാൻ ഒരു ഇരുപത് വയസ്സായപ്പോൾ ഞങ്ങളെ ഗ്രൗണ്ടിലുണ്ട് എന്നു കളിക്കാനുണ്ടായിരുന്ന ആള്ക്കാരും ഇന്നു നമ്മൾ ഗ്രൗണ്ടിൽ കളിയ്ക്കാനുണ്ട് ഞാന് വരുന്ന ആള്ക്കാരെ എണ്ണത്തിലും വളരെ മാറ്റമുണ്ട് ഇന്നത്തെ തലമുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാലവർക്ക് ഈ കായികവിനോദങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള താത്പര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത ആള്ക്കാരാണ് പക്ഷെ എല്ലാവരെയും നമ്മൾ അടച്ചപേശ് ആക്ഷേപിക്കുന്നില്ല എന്നാല്പ്പോലും അങ്ങനത്തെ ആള്ക്കാരുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കായിക വിനോദങ്ങള്ക്ക് നമ്മളെപ്പോഴും മുന്ഗണന കൊടുക്കണം അതു നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള മികവ് അമ്മക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അതു നമ്മാളാദ്യം തന്നെ ശ്രദ്ധിക്കണം പിന്നൊരു കാര്യം എന്തോയിച്ചയിഞ്ഞാൽ കായികവിനോദങ്ങള് നമുക്ക് ഫുട്ബോൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തരമായിട്ട് നമുക്ക് ഉയര്ന്നു വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എല്ലാ ലോകത്ത് ഒട്ടു മിക്ക ആള്ക്കാരും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ കായികവിനോദങ്ങളിലത്രയും താത്പര്യം കാണിക്കുന്ന ആള്ക്കാരാണ് അപ്പം നമ്മളെന്തോയ്ച്ചഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട കായികവിനോദമെന്നു പറയുന്ന ഫുട്ബോളാണ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഞാന് വി വിട്പോ വിശദീകരിച്ച് കഴിഞ്ഞു ഇത്രയും കാരണങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിഷ്ടപ്പെടാനുള്ളതും എന്നാണ് എനിക്ക് പറയാനുള്ളത്